അഭിരാമൻ ചേട്ടനാണോ

അതെ അതെ ഉണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ബന്ധു വീടുകളിൽ ഒക്കെ ഒന്ന് പോകണമായിരുന്നു

അടു അടുത്ത് തന്നെ ആണ് എന്തായാലും വൈ ഒരു ഉച്ച കഴിഞ്ഞത്തേക്ക് നമുക്ക് തിരിച്ച് വരാനായിട്ട് പറ്റത്തുള്ളൂ അതെ അതെ ആ ഞാനും അമ്മയും കൂടെ ആണ് വരുന്നത് ഞാൻ ഇപ്പോൾ അമ്മയുടെ വീട്ടിലാണ് ചിങ്ങവനത്ത് എൻ്റെ അമ്മയുടെ കൂടെ ആണ് ഞാൻ വരുന്നത് അതെ അതെ അല്ല അല്ല ചേട്ടന് അങ്ങോട്ടേക്ക് ആ ചിങ്ങവനം അടുത്താണ് എൻ്റെ വീട് വരുന്നത് അ പനച്ചിക്കാട് പോകുന്ന വഴിയിലോട്ടാണ് ആ ആ വരാൻ പറ്റും ഉച്ച ഒക്കെ കഴിയുമ്പത്തേനും വരാൻ പറ്റും ഇല്ല ഇല്ല ഇല്ല ആ മതി മതി ആ ഞാൻ പറയാം ആ എത്തുമ്പത്തേനും വിളിച്ചാൽ മതി ഇല്ല ഇല്ല രണ്ട് വീടുകളിലേ ഉള്ളു വിസിറ്റ് ചെയ്യാൻ പോകുന്നുള്ളു അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വാരാവുന്ന രീതിയിലേക്ക് ആ പിന്നെ നമുക്കൊന്ന് മെഡിക്കൽ ഷോപ്പിലൊന്ന് കയറണം അമ്മയ്ക്ക് കുറച്ച് മരുന്ന് മേടിക്കണമായിരുന്നു ആ ആ അതെ അതെ ആ ഒരു ടൈം എടുക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ വരും

ആ വിളിച്ചാൽ മതി അന്നേരം ഞാൻ പറയാം എന്തോ ആ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി ആ ആ ശരി ശരി